ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുള്ള വ്യവസായങ്ങള് എന്തൊക്കെയാന്ന് വെച്ചു കഴിഞ്ഞാല് കൂടുതലായിട്ടും തുണി വ്യവസായമാണ് കൂടുതലായിട്ടും ആൾക്കാര് കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കോഴിക്കോട് ജില്ലയില് തന്നേ എല്ലാവരും നല്ല രീതിയില് പൈസ ചിലവാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവര്ക്ക് കൂടുതലായിട്ടും ഈ ഡ്രസ്സിനോടൊക്കെയാണ് കൂടുതലായിട്ടും അവര്ക്ക് താല്പര്യവും കാര്യങ്ങളൊക്കേ ഉള്ളത് അപ്പം അവരീ മിട്ടായി തെരുവിലൊക്കേ തുണി വ്യാപാരം നടത്തുന്ന അതായത് ചെറിയ രീതിയില് വിലയ്ക്ക് എല്ലാം ഒരു സ്ഥലത്ത് കിട്ടുന്ന തുണി വ്യാപാരവും ഈ ചെരുപ്പിന്റെ അങ്ങനത്തേ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് മിട്ടായി തെരുവിലൊക്കേ പോയിട്ട് എല്ലാവരും തുണിയും കാര്യങ്ങളൊക്കേ എടുക്കും അവര് കൂടുതലായിട്ടും ഈ ഫെസ്റ്റിവല് അങ്ങനത്തേ ടൈപ്പിനൊക്കെയാണ് കൂടുതലായിട്ടും ഡ്രസ്സ് ഒക്കേ എടുക്കുന്നത് വേണമെങ്കിൽ പറയാം പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെയൊക്കേ പ്രധാന വെല്ലുവിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുത്തനെയുള്ള വിലകയറ്റവും കാര്യങ്ങളൊക്കെയാണ് ഇവര്ക്ക് മെയിന് ആയിട്ടുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ അതൊക്കേ നല്ല രീതിയില് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളുമൊക്കെ കിട്ടുകയുള്ളു